ആ അതേ നമുക്കൊരു വീട് വേണമായിരുന്നു അതൊരു പഴയകാലത്തെ പോലത്തെ നല്ലൊരു അടിപൊളി വീട് അതു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല വലിയ മുകളിൽ തട്ടൊക്കെ വേണമെങ്കിൽ തട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പത്തായം മനസ്സിലായില്ലേ ആ നടുമുറ്റം സ്ക്വയർ ഫീറ്റിപ്പോൾ ഒരു രണ്ടായിരം നല്ല വലിയ വീടാണെങ്കിൽ ആ

അതിപ്പോൾ എൻ്റെയൊരു മനസ്സിലത്തെ ആഗ്രഹമാണ് എനിക്ക് അങ്ങനത്തെ ഒരു വീട് വേണം എന്നുള്ളൊരു ഒരാഗ്രഹമാണ്

ഓ അപ്പോൾ ഇത് വച്ചു കഴിഞ്ഞാൽ ആ

ആ രണ്ടല്ല മൂന്നു നില വേണം മനസ്സിലായില്ലേ ആ മുകളിൽ പത്തായം വരണം ആ മച്ചുതന്നെ തട്ടെന്നു പറയും

ആ അതു കുഴപ്പമില്ല കോസ്റ്റ് കുഴപ്പമില്ല കോസ്റ്റ് എത്ര ആയാലും വീട് നല്ല കുഴപ്പമില്ല സമയമെടുത്താലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റണ രീതിയിൽ അടിപൊളിയായി ചെയ്യു റൂമ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മൊത്തമൊരു ആറ് ഏഴു റൂമ് വേണ്ടി വരും ആ മുകളിലും അടിയിലും കൂടി മൂന്നു മൂന്നു വച്ചു കൂട്ടിക്കോളൂ ചുവട്ടിൽ മൂന്ന് മൂട്ടിലും മൂന്ന് ആ അതുതന്നെ അതുതന്നെ അതേ സംഭവം ആ നടുമുറ്റമൊക്കെ ഉള്ളതുതന്നെ മഴ പെയ്താൽ ആ വെള്ളമൊക്കെ പറഞ്ഞാൽ നടുക്ക് വീഴണപോലെ

ആ ഓ അതുതന്നെ പിന്നേ ഫ്രണ്ടിൽ ആ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ടിൽ കാണുമ്പോഴെ തോന്നുന്നതൊരു ഒരു ഒരു മന പോലെയൊക്കെ തോന്നണം

ആ ആ പുതിയ ടെക്നോളജി ഒരു ആൻ്റിക്ക് അതുപോലെ അതു വച്ചിട്ടൊരു പഴയകാലത്തെ ടെക്നോളജി വച്ചിട്ട് പുതിയതുപോലെ ആ അതുതന്നെ ആ അതുതന്നെ അതുതന്നെ

സ്ഥലം നമ്മുടെ ചെർപ്പുളശ്ശേരിയല്ലേ ഒറ്റപ്പാലം പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വച്ചാൽ മതി അതിപ്പോൾ ഇത് സ്ഥലവും തൊടിയുമൊക്കെ വേണം കുറച്ചു തൊടിയും വേണം അപ്പോൾ ഒരു ഒരു അമ്പതു സെൻ്റ് ആയിക്കോട്ടെ

ബാക്കി ഇരുപതു സെൻ്റ് പറമ്പും ഉണ്ടല്ലാ ആ അമ്പതിലൊരു അറുപതായാലും കുഴപ്പമില്ല

ആയിക്കോട്ടെ ആ അതെയതെ

നല്ല സ്കില്ലുള്ള ലേബേഴ്സിനെ നോക്കിയെടുക്കാൻ നോക്കണേ

ആ വെട്ട് അതെയതെ അതെയതെ ആ വെട്ടുകല്ല് മതി അതാവുമ്പോൾ കുറച്ചുകൂടി ആ അതെയതെ അതെ അതു ശരിയാണ് ആ എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്ത് റൂം ആയിക്കോട്ടെ പിന്നെ എല്ലാ റൂമിലും തട്ട് വേണേ തട്ടുള്ളതാവണെ മനസ്സിലായില്ലേ തട്ട് നിറച്ച് നിറച്ച് ഓ ആയിക്കോട്ടെ ഓക്കെ ഓക്കേ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതിപ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി ശരി ശരി ആ ആയിക്കോട്ടെ ആ എൻ്റെ വീടറിയില്ലേ ആ എന്നാൽ ഇറങ്ങണ സമയത്ത് ആ ഒന്നു വിളിച്ചാൽ മതി ശരി ആ ശരിയെന്നാൽ ഓക്കെ